ഹലോ മോർണിംഗ് ട്രാവൽ ഏജൻസി അല്ലേ എനിക്ക് ഞങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇതുവരെയും ഡ്രൈവറെ വിളിച്ചിട്ട് ഡ്രൈവറ് ഫോണെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ഫോണെടുക്കാത്തതെന്ന് ഇതുവരെയും റിപ്ലൈ തന്നിട്ടില്ല ഞങ്ങൾക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഞങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത് അത് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് വേറെ വണ്ടി വിളിച്ച് പോകൺ പോകൺ പോകട്ടെയോ അത് ഡ്രൈവർ ഫോണെടുത്ത് എന്നെ വിവരമൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അതിന് ഞങ്ങൾക്ക് ഇത്രയും താമസിച്ചതിന് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ തരണം